ഹലോ ആഹ് ഹലോ ആണല്ലോ എന്തൊവാ വേണ്ടത് ആഹ് ബീഫ് പോര്ക്ക് മട്ടണ് മൂന്നെണ്ണം ആഹ് ചിക്കന് ചിക്കന് ചിക്കന് ആഹ് അതാ പോര്ക്ക് എന്ന് പറഞ്ഞാൽ അതായിരുന്നു ആഹ് ആഹ് മ് മ് ആഹ് ആഹ് പോര്ക്കിന് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് ആഹ് ബീഫിന് ബീഫിന് നാനൂറ്റിപ്പത്ത് നാനൂറ്റിപ്പത്ത് മ് ആഹ് ആട് ഉണ്ട് അറുനൂറ്റി ആപ്പത് അറുനൂറ്റി നാൽപ്പത്

ആഹ് ഇച്ചരെ ഡിസ്കൗണ്ട് ഒക്കെ തരും ഇച്ചരെ ഡിസ്കൗണ്ട് ഒക്കെ തരും

നിങ്ങൾക്ക് എത്ര കിലോയാ വേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ അനുസരിച്ച് ഞങ്ങൾ ഇച്ചരെ ഡിസ്കൗണ്ട് തരാം തരാം ഇല്ലില്ലില്ല ഫ്രഷ് ഫ്രഷ് ഞങ്ങൾ ഫ്രഷ് മാത്രമേ ഇവിടെ പ്രൊവൈഡ് ചെയ്യത്തൊള്ളൂ ആര്ക്കും യെസ് അതോ അതെ അതെ അതെ അതെ അതെ അതെ രാവിലെ വെളുപ്പിനെ ഞങ്ങൾ ശരിയാക്കുന്നാ മ് ഒരു കുഴപ്പവും വരുകേലാ ഞാന് ഹണ്ട്രഡ് പേര്സെന്റ് ഉറപ്പാ പറയുന്നത് ആഹ് എഴുതി വെച്ചോ കുഴപ്പം ഇല്ല ഞാന് ഹണ്ട്രഡ് പേര്സെന്റ് ഓര്ത്തോ ഉറപ്പാ പറയുന്നത് എല്ലാം റെഡിയാക്കി തരും നിങ്ങൾക്ക് ജസ്റ്റ് കഴുകുക അത് അടുപ്പേലോട്ട് വെക്കുക അത്രയും പരിപാടിയെ ഉള്ളൂ ഏഹ് ആഹ് അതിനും തരാം അതിനും റെഡിയാക്കി തരാം അതിന് ഞാന് റെഡിയാക്കി തരാം നിങ്ങൾ നിങ്ങൾ പറയുക അതനുസരിച്ച് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മ് ആഹ്

ആഹ് ഓക്കെ ഒരു കുഴപ്പവും ഇല്ല ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആഹ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അന്നേരം പറഞ്ഞാൽ മതി സംഗതി ആഹ് എല്ലാം റെഡിയാക്കി നിങ്ങളുടെ കയ്യിൽ തരും നിങ്ങൾ കൂടുതല് സാധനം ഉണ്ടെങ്കില് ഞങ്ങൾ വീട്ടില് കൊണ്ടെത്തിച്ച് തരാം ആഹ് ഡെലിവറി ചെയ്യാം ആഹ് പിന്നെ എങ്ങനെയാ കട്ട് ചെയ്യേണ്ടത് ഏത് പിന്നെ ഇതിനുള്ളതാണെന്ന് ഓരോ സാധനത്തിന്റെയും പറയണം അതനുസരിച്ചാണ് ഞങ്ങൾ കട്ട് ചെയ്ത് തരുന്നത് ആഹ് ആഹ് ഉള്ളൂ ഉള്ളൂ ഉള്ളൂ ഉള്ളൂ മ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ് പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആഹ് ആഹ് ഫ്രഷ് മീറ്റ് ആയിരിക്കും ഫ്രഷ് മീറ്റ് ആയിരിക്കും നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ കട്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരാം അതില്ല അതിനുള്ളത് കട്ടിങ്ങിന്റെതിന് എഴുതി തരാം ആഹ് പരുവത്തില് കട്ട് ചെയ്യാം അത് പറഞ്ഞാൽ മതി എത്ര കിലോ കട്ട്ലേറ്റിന് വേണം എത്ര കിലോ ബിരിയാണിക്ക് വേണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരിക പറഞ്ഞ് തന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു അതിന് എസ് എം എസ് അയച്ചാൽ മതി അയച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാമല്ലോ അതുവഴി ഞാനത് റെഡിയാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ എവിടെയാ കൊണ്ടു തരേണ്ടത് എന്നുള്ള ആ ഇതും കൂടെ ലോക്കെഷനും കൂടെ അയച്ചു തരുക ഞങ്ങൾ വീട്ടിൽ കൊണ്ടെത്തിച്ചോളാം വീട്ടിൽ കൊണ്ടെത്തിച്ചോളാം ആഹ് യെസ് ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങളെ എസ് എമ്മ് എസ് അയച്ചാൽ മതി എത്രയാണെന്ന് അല്ലെങ്കില് നമുക്ക് ചിലപ്പം ചെയ്യുമ്പം തെറ്റി പോവേലെ തെറ്റി പോകാതിരിക്കാന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ആഹ് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സീ യൂ മ് ഓക്കെ ഓക്കെ നന്ദി